ബാല്യകാല സ്മരണകൾ ഒരുപാടുണ്ട് അത് മറക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ലല്ലൊ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുന്നതും നമ്മുടെ ഫാമിലിൻ്റെപ്പം കസിൻസിൻ്റെപ്പവും നമ്മള് പോയ സ്ഥലങ്ങള് തുടങ്ങി ഒരുപാടുണ്ട് ചൈ നമ്മുടെ ബാല്യകാലസ്മരണകള് അതില് എൻ്റെയിപ്പോൾ ഒരെണ്ണം പറയുകയാണെങ്കിൽ ഞാൻ കന്യാകുമാരിയിൽ പോയത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ് അത് ഫാമിലിയായി ഞങ്ങള് കുടുംബക്കാര് എല്ലാവരും കൂടെ ആയിട്ട് പോയതാണ് കുടുംബത്തോടെ എന്താ ഒര്കാലത്തും മറക്കാൻ പറ്റാത്തൊരുപാട് തരത്തിലുള്ള അനുഭവങ്ങള് നമുക്ക് എനിക്കതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പൊൾ പറയുകയാണെങ്കിൽ യാത്ര ഫുഡ് അവിടെനിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് അവിടെ കണ്ട കാഴ്ച്ചകള് അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റങ്ങള് തുടങ്ങി ഒരുപാട് കാര്യങ്ങള് എനിക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനോടൊര് പ്രത്യേക ഒരു താത്പര്യം തോന്നുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് അതോണ്ടെൻ്റെ ജീവിതത്തില് മറക്കാൻ പറ്റാത്തൊരു ബാല്യകാല സ്മരണയാണ് കന്യാകുമാരി യാത്ര